നമ്മുടെ പാലക്കാട് വിനോദ മൂല്യമുള്ളത് ഏറ്റവും കൂടുതല് പാലക്കാട് വേലകളും ഉത്സവങ്ങളും ഒക്കെയാണ് ഇവിടെ വേലകളെന്നു പറയുന്നത് സാധാരണ അമ്പലത്തിലെ ഉത്സവങ്ങൾ തന്നെയാണ് അതു തന്നെയാണ് ഈ നാട്ടിന്റെ ഓരോ നാടുകളിലും അടുത്തടുത്തായിട്ട് കുറേ ഉത്സവങ്ങളുണ്ടാവും അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രചെയ്തിട്ട് അതെല്ലാം പങ്കെടുക്കുവാന് വേണ്ടി ശ്രമിക്കും അതു തന്നെയാണ് ഈ നാട്ടിൽ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ